ഇപ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് ബിസിനസ്സിനൊക്കെയായിട്ടുള്ളൊരു പ്രകൃതി വിഭവം എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം പ്രകൃതി വിഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴൊരു പാ പാഷൻ ഫ്രൂട്ട് അതൊരു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിഭവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ടാണ് ഇപ്പം അത് നമുക്ക് വേണമെങ്കിൽ പുറമെ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വിലയും കാര്യങ്ങളുമൊക്കെ കിട്ടും ഇല്ലെങ്കിൽ നമുക്കത് എന്താ പറയുക ഇപ്പോളൊരു ജാമാക്കിയിട്ടും അല്ലെങ്കിൽ ഒരു സ്ക്വാഷ് ആക്കിയിട്ടൊക്കെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം അത് ആൾക്കാർ വാങ്ങുകയും ചെയ്യും അപ്പം നല്ലൊരു എന്താ പറയുക ഒരു പ്രൊഡക്റ്റാണ് കാരണം ആ ഈ എന്താ പറയുക ഇപ്പം കൗണ്ടില്ലാത്തവർക്ക് കൗണ്ട് കൂട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു മെയിൻ ഉദ്ദേശമെന്ന് വേണമെങ്കിൽ പറയാം അതിപ്പത് അത് കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും നമുക്കുള്ള കാശും കിട്ടും അപ്പം അതൊക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിഭവമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നുള്ളു പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കാപ്പിയും കുരുമുളകും അങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യുന്നവരുണ്ട് അപ്പം ഈ കുരുമുളകിനിപ്പോൾ അഞ്ഞൂറ് ആ റേറ്റാണ് വരുന്നത് അപ്പം ആദ്യമൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എണ്ണൂറ് ആ ഒരു റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് അങ്ങനെ എന്താ പറയുക ഇപ്പം ഇപ്പം വില കുറഞ്ഞ് വന്ന് തുടങ്ങി കാപ്പിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ശരിക്ക് കാപ്പിപൊടിക്ക് തന്നെയാണ് എല്ലാവരും കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ അതും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു വിഭവമായിട്ടാണ് ഉള്ളത് അപ്പോൾ അത് നമുക്കൊരു ബിസിനസ്സ് പരമായിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിയൊക്കെയാണ്